എനിക്ക് നൃത്തം ചെയ്യുമ്പോൾ പോസിറ്റീവ് എനർജിയാണ് കേട്ടോ കിട്ടാറ് കാരണം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഓരോരുത്തർക്ക് ഓരോ ഹോബി ഉണ്ടാകും ചിലവർക് ഇപ്പോൾ ഭയങ്കര ടെൻഷൻ ആണെങ്കിൽ നൃത്തം ചെയ്യുമ്പോൾ ഭയങ്കര ആശ്വാസമായിരിക്കും ഇപ്പോഴത്തെ നൃത്തങ്ങൾ ഒക്കെ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലൊ നമ്മൾ റീൽസ് പോലത്തെ ഉള്ളത് ചെയ്യുമല്ലൊ ചെയ്യുന്നത് ആണല്ലോ ഇഷ്ടം ഞാൻ ഓരോ പാട്ട് വരുമ്പോൾ അതിനനുസരിച്ച് ഓരോരുത്തർ ചെയ്തിടുന്ന കാണുമ്പോൾ ഞാൻ എൻ്റെതായ ശൈലിയിൽ അതേപോലെ ഒക്കെ അനുകരിക്കാൻ നോക്കാറുണ്ട് എനിക്ക് ഇഷ്ടമാണ് അപ്പം എന്താ പറയുക അത് നമ്മുടെ മനസ്സിന് സന്തോഷം ചെയ്യും അതായത് നമ്മുടെ മൈൻഡ് എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ തേടി നടക്കും ഒന്നിൽ മാത്രം നിൽക്കാതെ വേറെ എല്ലാത്തിലോട്ടും നമുക്ക് ചിന്തിക്കാൻ പറ്റും അങ്ങനെ ഒക്കെ ആകുമ്പോൾ അപ്പോൾ നമ്മുടെ മനസ്സിന് വേറെ ഒരു ഇതും വരാതെ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട് ഒന്നും വരില്ല നമ്മൾ പുതിയത് പുതിയത് ചെയ്യണം പുതിയത് പുതിയത് കണ്ടെത്തണം അപ്പോൾ ഒരു പാട്ടിനാണെങ്കിൽ കോസ്റ്റും അങ്ങനത്തെ വേണം അത് ചെയ്യണം അങ്ങനെയുള്ള മനസ്സിന് മുന്നോട്ട് ചിന്തിക്കാൻ നമ്മളെ പ്രാപ്തിയാക്കും അപ്പോൾ നൃത്തം നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ഇതാ കുറച്ചും കൂടെ ബെറ്റർ ആക്കണം ആ പാട്ടിന് അങ്ങനെ ചെയ്യാലോ അങ്ങനെ ഒക്കെ തോന്നാറുണ്ട് എനിക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ഡാൻസ് കളിക്കുന്നതിലൂടെ കിട്ടുന്നത്